എൻ്റെ പ്രദേശത്ത് ഒരുപാട് പക്ഷികൾ കാണാം ഒരുപാട് കളറുകൾ നിറത്തിലുള്ള ഒരുപാട് പക്ഷികൾ കാണാം എൻ്റെ വീടിൻ്റെ തൊട്ട് ജനൽ ജനലിലൂടെ നോക്കിയാൽ കാണാം ഒരു ചെടിയുണ്ട് ഒരു ഒരു പുല്ലുപോലുള്ളൊരു ചെടിയാണത് കുറച്ചൊരു ഹൈറ്റ് ഉള്ളൂ അതിലൊരു ചെടി ഒരു പക്ഷി എപ്പോഴും ഓരോ ഓരോ നാരുകൾ കൊണ്ടുവന്ന് കൂടുകെട്ടുന്നത് ഇപ്പോൾ കൂട് ഒരു പകുതിയായി ഞാൻ ഇടയ്ക്ക് പോയൊന്ന് നോക്കും അത് പകുതി കെട്ടിയായി അത് അതൊരു കുഞ്ഞു കിളിയാണ് കുരുവിയെ പോലുള്ളൊരു കിളിയാണ് അതുപോലെ എൻ്റെ വീട്ടിൽ ഒരുപാട് നിറത്തിലുള്ള വാലാട്ടി കിളികൾ ഒരു പച്ച പച്ചയല്ല നീല വെള്ള മഞ്ഞ എന്നീ ഓറഞ്ച് എന്നിങ്ങനെയുള്ള കളറുകളിലാണ് മാറിമാറി കാണാം അതുപോലെ ഇടയ്ക്കൊക്കെ ഈ മഴക്കാലങ്ങളിലൊക്കെ ഇടയ്ക്ക് വാഴയില ഇപ്പോൾ പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴുത്ത പഴങ്ങളെ കണ്ടാൽ അതിൻ്റെ അടിയിൽ വന്നിടയ്ക്ക് കൊത്തുന്നതൊക്കെ കാണാം അതുപോലെ എപ്പോഴെങ്കിലൊക്കെ മയിൽ വരാറുണ്ട്